കോഴി വളർത്തുന്നത് നല്ലൊരു പരിപാടിയാണ് കോഴി നമ്മൾ തന്നെ അട വീട്ടിൽ അട വച്ച് മുട്ട വിരിയിച്ച് എടുക്കുന്ന കോഴികളാണ് ഏറ്റവും നല്ല കോഴികൾ

കൂടുതലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികളും അവരുടെ മുട്ടകളും എല്ലാം ഉപയോഗിക്കുക